ഓർഡറ് ചെയ്ത ഭക്ഷണം അടിപൊളിയായിരുന്നു ഞങ്ങള ഇവിടെ ഒരു ബേഡേ ഫംഗ്ഷനിണ്ടായിരുന്നു ഒരു കുഞ്ഞ് കുട്ടീന്റെ ഒരു വയസ്സ് ബേഡേ ഫംഗ്ഷനായിരുന്നു എല്ലാവരും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനിന്നാണ് പക്ഷേ പറ്റീല്ലാ അതുകൊണ്ട് ജസ്റ്റ് റിലേറ്റീവ്സിനെ മാത്രം ഒരു പത്തിരുപത് പേരെ മാത്രം വെച്ചിട്ടാണ് ഞങ്ങള് ഇത് സെലിബ്രേറ്റ് ചെയ്തത് ഫുഡ് ഓർഡറ് ചെയ്തത് പത്തിരി ചപ്പാത്തി പൊറോട്ട ബിരിയാണി വെജ്ജ് ബിരിയാണി ഇണ്ടാരുന്നു ചിക്കൻ ബിരിയാണി ഇണ്ടാരുന്നു പിന്നെ ചില്ലി ചിക്കൻ അങ്ങനെ കുറച്ച് ഐറ്റംസുണ്ടായിരുന്നു നല്ല ഡെലിവറി ആയിരുന്നു ഡെലിവറി ഞങ്ങള് പെട്ടെന്നായിരുന്നു തീരുമാനമെടുത്തെ ഇവര് വീട്ടില് ഇണ്ടാക്കാന്നാ പറഞ്ഞത് പിന്നെ പെട്ടന്ന് എല്ലാ സാഹചര്യം ഒത്തു വന്നില്ല അപ്പോൾ പെട്ടന്ന് ഓർഡറ് ചെയ്തിട്ട് നമുക്ക് വരുത്താന്ന് വിചാരിച്ചു അങ്ങനെയിരുന്നതാണ് തലേ ദിവസം പറ്റീലാ രാവിലെ ഞങ്ങള് ഒര് എട്ട് മണി ആയ ആയപ്പഴാണ് ഓർഡറ് ചെയ്തത് ഞങ്ങളാ കറക്റ്റാ ചേട്ടനോട് എല്ലാം പറഞ്ഞു ഒരു പത്ത് മണീൻ്റെ ഉള്ളിലെങ്കിലും ഞങ്ങൾക്ക് ഫുഡ് ഇവിടെ എത്തിയിരിക്കണം എന്നൊക്കെയായിരുന്നു ഞങ്ങള് പറഞ്ഞത് ഞങ്ങളെല്ലാവരൂടെ ടെൻഷനായായിരുന്നു എത്താൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു രീതിയില് പക്ഷേ ആള് തന്നെ നല്ല കൂളായിട്ടാണ് സംസാരിച്ചത് കുഴപ്പമൊന്നുമില്ല് പത്ത് മണിക്കല്ലേ ഞങ്ങളെത്തിക്കാം എന്നൊരു രീതിയിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങക്കെന്നാലും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എത്തിച്ചു പത്ത് മണിക്കല്ല ഒരു ഒമ്പതേ നൽപ്പത്തഞ്ചാവുമ്പഴേക്കും തന്നെ ഞങ്ങൾക്ക് ഫുഡ്ഡ് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു ഡെലിവറി ചേട്ടനാണെങ്കിലും നന്നായി സംസാരിച്ചു അതുപോലെതന്നെ ഇടപഴകാനൊക്കെ നല്ല നല്ലൊരു നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു ആളും പിന്നെന്ന് പറഞ്ഞാൽ ആളെങ്ങനെ വരുമ്പം പെട്ടന്നൊന്ന് ഒര് എന്തോ തലകറങ്ങണ പോലെ ഒക്കെ തോന്നി പക്ഷേ എന്നാലും ആ ചേട്ടൻ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ട് വന്ന് തരികയാണ് ചെയ്തത് നല്ല സർവീസ് ആയിരുന്നു അവര്ൻ്റെ എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് അത് പത്ത് ഇരുപത് പേർക്കുള്ള ഫുഡ് ആയതുകൊണ്ട് നല്ല നീറ്റിലായിരുന്നു എല്ലാവർക്കും കൂടി പാക്ക് ചെയ്തത് എല്ലാവരും കഴിച്ചിട്ട് എല്ലാവരും നല്ല ഭ നല്ല ഫീഡ്ബായ്ക്കായിരുന്നു പറഞ്ഞത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനെ വിളിച്ചു പറയാൻ നല്ല ഫുഡാണ് ഇനിയും നിറയെ പേർക്ക് സപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാരുന്നു നല്ല ഫുഡാണ് ആ ഫുഡ് ഉണ്ടാക്കണ ആളെ എസ്പെഷ്യലി നന്നായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു അത്രയും നൽ താങ്ക്സ് താങ്ക്സ് എന്ന് പറയാനും പറ്റില്ല അതിൽ കൂടുതൽ ഒരു വാക്ക് ഉണ്ടെന്ന് പറഞ്ഞ അത് അതുതന്നെ പറയണം കാരണം കറക്റ്റ് സമയത്തിന് എത്തിച്ചും ചെയ്തു നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു ചേട്ടൻ സെർവ് ചെയ്തത് താങ്ക്സ് ഫോർ എവരിത്തിങ് താങ്ക്യൂ ചേട്ടാ താങ്ക്യൂ